ഉത്തരേന്ത്യേലും ദക്ഷിണേന്ത്യേലും നമുക്ക് ചില വ്യത്യാസങ്ങൾ കാണാൻ പറ്റും പ്രധാനമായിട്ടും അവരുടെ ഭാഷ അവരുടെ ഭക്ഷണരീതികൾ വസ്ത്രധാരണ കാലാവസ്ഥ ഇതിലെല്ലാം വ്യതിയാനങ്ങൾ രണ്ട് രണ്ട് സ്ഥലങ്ങളും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങൾ കാണിക്കാൻ കാണാം ഇപ്പോൾ നമ്മൾ കാലാവസ്ഥ നോക്കുവാണെങ്കിൽ പിന്നെ ഉത്തരേന്ത്യേൽ വളരെ എക്സ് ടെ വളരെ ചൂടായിട്ടുള്ള ക്ലൈമറ്റായിരിക്കും പിന്നെ പിന്നെ തണുപ്പ് വന്നാലും അതുപോലെ നല്ല തണുപ്പും ഉണ്ടാവും പ്രത്യേകിച്ച് ഡെല്ലി പഞ്ചാബ് ഉത്തർപ്രദേശ് എന്നീ സ്ഥലങ്ങളിലേക്ക് ഇപ്പോഴത്തെ ടെംപറേച്ചർ എന്നു പറഞ്ഞാൽ നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് നാൽപ്പത്തി അഞ്ച് ആണ് പിന്നെ സമ്മറാകുമ്പോൾ തന്നെ അത് അഞ്ച് അഞ്ച് സി ആയിരിക്കും അങ്ങനെ വളരെ ക്ലൈമറ്റ് രീതിയിൽ വളരെ വ്യത്യാസം ഉണ്ട് അതേ സമയം സൗത്തിൽ ആണെങ്കിൽ ഇപ്പോൾ ക്ലൈമറ്റ്ന്ന്ച്ചാൽ മോഡറേറ്റ് ടെംമ്പറേച്ചറാ ഒരു ഒരു തോതിലുള്ള ഒരു ചൂടായിരിക്കും നമുക്ക് ഉള്ളത് പിന്നെ നമുക്ക് ഏറെ പ്രത്യേകിച്ച് കോസ്റ്റല് മീൻസ് ഈ കടലോര പ്രദേശങ്ങളായിട്ടുള്ള കേരളവും തമിഴ്നാടും കർണാടകേലുവൊക്കെ ഇച്ചിരി റിജിഡ് ഹുമിഡായിട്ടുള്ള വെതറും പിന്നെ നല്ല കൂടുതൽ ത പിന്നെ ശക്തമായിട്ടുള്ള മഴയുമായിരിക്കും നമ്മുടെ മൺസൂൺ കാലങ്ങളിൽ അതായത് ഈ രണ്ട് കാ സ്ഥലങ്ങളും തമ്മിലുള്ള പിന്നെ കാലാവസ്ഥ ലാംഗ്വേജ് പറയാനായിരുന്നെങ്കിൽ ഉത്തരേന്ത്യേൽ നമ്മൾ എന്ന്ച്ചാൽ ചിലർ സംസാരിക്കും ഹിന്ദി സംസാരിക്കും പഞ്ചാബ് സംസാരിക്കും ബംഗാളി സംസാരിക്കും ബജ്പിരി സംസാരിക്കും പിന്നെ ഹിന്ദിയാണ് കൂടുതലായിട്ടും അവിടെയുള്ള ആൾക്കാർ ഉത്തരേന്ത്യേലെ ആൾക്കാർ മനസ്സിലാക്കുന്നത് സമയം നമ്മൾ സാ പിന്നെ ഒന്നിനെ ദക്ഷിണേന്ത്യേലെ ആൾക്കാർ എന്ന് പറയുമ്പോൾ അവർ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഒരു ദ്രാവിഡ ലാംഗ്വേജുകളാണ് അതെന്താന്ന് വെച്ചാൽ ദ്രാവിഡ ഭാഷകളാണത് തമിഴ് തെലുങ്ക് മലയാളം കന്നടയൊക്ക്യാണ് അവർ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് പിന്നെ ഇവരുടെ നമ്മൾ കഴിക്കുന്ന ആഹാര രീതികൾ ഭക്ഷണത്തിൻ്റെ രീതികളെന്ന് പറയാൻ നോർത്ത്കാർ കൂടുതലായി മീൻസ് ദക്ഷി ഉത്തരേന്ത്യക്കാർ കൂടുതലായിട്ടും അവർ ചപ്പാത്തി നാന് പിന്നെ അവർ കൂടുതലായിട്ടും പിന്നെ എന്താ പിന്നെ എന്താ ഡയറി പ്രോഡട്സ് ഈ പാലിൻ്റെ സാധനങ്ങൾ ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് പ്രൈസസ് സ്പൈസസ് ഗ്രേവി അങ്ങനെ ഒക്കെ അതേ സമയം നമ്മുടെ ദക്ഷിണേന്ത്യ ആൾക്കാർ കൂടുതലായിട്ടും അവർ നമ്മുടെ ഡ നമ്മുടെ ആഹാര രീതികൾ എന്ന് പറയുന്നത് വെത വിധവിധമായിട്ടുള്ള ഡിഷുകളായിരിക്കും പ്രത്യേകിച്ച് ദോശ ഇഡലി സാമ്പാറ് രസം പിന്നെ കോക്കനെറ്റ് പിന്നെ പുളി രസം അങ്ങനെ പല രീതിയിലുള്ള നമ്മൾ കുക്ക് ചെയ്തിട്ട് ഒത്തിരി അപ്പം രണ്ട് പേര് ഭക്ഷണ രീതികൾ തമ്മിൽ നല്ല വളരെ അധികം വ്യത്യാസം ഉണ്ട് രണ്ട് സെൻ ഇതിലും നമുക്ക് ഒത്തിരി എരിവും കാര്യങ്ങളും എല്ലാം പിന്നെ സൗ പിന്നെ ദക്ഷിണേന്ത്യക്കാർ ഉപയോഗിക്കും പക്ഷേ നോ പിന്നെ ഉത്തരേന്ത്യക്കാർക്കത് വളരെ പിന്നെ പാട പിന്നെ നമ്മുടെ വസ്ത്ര ധാരണങ്ങൾ എന്ന് പറയുവാണെങ്കിൽ ഈ ദക്ഷിണേന്ത്യക്കാ ഉത്തരേന്ത്യക്കാർ കൂടുതലായിട്ടും ആണുങ്ങൾ പിന്നെ ഈ കുർത്തായും പൈജാമയും സാ അതൊക്കെ ആയിരിക്കും ഷോൾവും ധോത്തിയൊക്കെ അവർ ഉപയോഗിക്കുന്നത് വേ പെണ്ണുങ്ങൾ സാരിയും സലവാർ കമ്മീസും ഓക്കെ വൂള പിന്നെ തണുപ്പിന് വേണ്ടീട്ടുള്ള വൂളൻ ക്ലോത്തും എന്നുവെച്ചാൽ തണുപ്പത്ത് തണുപ്പത്ത് കാലത്ത് സ്വെറ്ററുകളൊക്കെ ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത് അതേ സമയം നമ്മൾ ദക്ഷിണേന്ത്യക്കാർ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് അതനുസരിച്ചുള്ള നമ്മൾ ലുങ്കി ഉപയോഗിക്കും നമ്മൾ വേഷ്ടി ഉപയോഗിക്കും മുണ്ട് ഉപയോഗിക്കും പിന്നെ സ്ത്രീകൾ ആണെങ്കിൽ അവർ സാരി ഉപയോഗിക്കും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ സിൽക്കും കാഞ്ചിപുരം അങ്ങനെ ആ രീതിയിലുള്ള പിന്നെ വസ്ത്രങ്ങളായിരിക്കും നമ്മൾ ധരിക്കുക പിന്നെ നമ്മൾ കൾച്ചറ് നമ്മുടെ കൾച്ചറായിട്ടുള്ള ചില നമ്മൾ ഏത് രീതിയിൽ അത് നമ്മൾ ചിലപ്പം നമ്മൾ ദക്ഷിണേന്ത്യക്കാർ നമ്മൾ പൊങ്കൽ ഓണം വിഷു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സെലബ്രേറ്റ് ചെയ്യും അപ്പം ഉത്തരേന്ത്യക്കാർ സെലബ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നവരാത്രി രക്ഷാബന്ധൻ ഹോളി ദീപാവലി അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും അവർ പിന്നെ നമുക്ക് കൂടുതലായിട്ടും ഭൂഘടനകൾ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് സാക്ഷരത ലെവലിലും വ്യത്യാസം ഉണ്ട് ഇപ്പം ദക്ഷിണേന്ത്യേൽ ആൾക്കാർ നല്ല പഠിച്ച ആൾക്കാരായിരിക്കും ഒത്തിരി ലാങ് ഒത്തിരി പിന്നെ ഇപ്പപ്പാന്നേ അറിവുകളും നോളേജുകളും വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി കഴിവുകളും ഉയർന്ന നിലയിൽ ഒക്കെ ആകുന്നത് ആകുന്ന ആൾക്കാരാണ് ഈ ഏരിയേലുള്ളവർ അതേ സമയം ഉത്തരേന്ത്യക്കാരെന്ന് പറയുന്നത് ഇപ്പോൾ അവർ കുറച്ചു കൂടെ ഇത് നേടീട്ടുണ്ട് പക്ഷേ പണ്ടവരുടെ അവരെ സാക്ഷരത ലെവല് തീരെ കുറവാണ് അവർ റേറായിട്ട് കുറച്ച് പേരൊക്കേ നന്നായിട്ട് പഠിക്കുന്നുള്ളു ഉള്ളു അപ്പം അങ്ങനെ ആര് പിന്നെ രാഷ്ട്രീയപരമായിട്ട് ഉത്തരേന്ത്യേലെ ഭയങ്കര പൊളിറ്റിക്സാണ് നമുക്ക് ഉണ്ടെങ്കിൽ പോലും അവിടെയാണ് കൂടുതലായിട്ടും പൊളിറ്റിക്സുകളും പിന്നെ ഭൂഘടന തമ്മിൽ വ്യത്യാസം ഉണ്ട് കൃഷി നമുക്ക് മലകളും കുന്നുകളും എവ് എല്ലാ കാര്യങ്ങളും ദക്ഷിണേന്ത്യേലുണ്ട് പക്ഷേ ഉത്തരേന്ത്യ വരുമ്പോൾ അങ്ങനെ വലിയ മലകളൊന്നും ഇല്ലെങ്കിൽ പോലും രണ്ട് ഭൂഘടനകൾ തമ്മിലും വളരെ അധികം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു